ആ നമസ്കാരം ചേട്ടാ ഞാൻ ഇതിന് മുന്നേ ഒരു ഫുൾ അൽഫാമ് ഓർഡര് ചെയ്തർന്നു ഒരു അഞ്ച് നിമിഷം മുന്നേ ആ ഓർഡറിൻ്റെ കൂടെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമായ കോളയോ അല്ലെങ്കിൽ പെപ്സിയോ ഏതെങ്കിലും ഒന്ന് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടില് അവിടെ അതിന് കൂടെ ആഡ് ചെയ്യണം